നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ വിവിധങ്ങളായ മെച്ചപ്പെട്ട

വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും മെച്ചമായിട്ട് തോന്നുന്നു തൊഴിലുറപ്പ് പദ്ധതി ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ കയ്യിൽ പൈസ വരുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് തൊഴിലുറപ്പ് പദ്ധതി പലപ്പോഴും കൃത്യ സമയത്ത് പൈസ കിട്ടുന്നില്ലെങ്കിൽ പോലും അവർക്കത് അക്കൗണ്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകരിക്കാം പ്രായമായവർക്ക് വലിയൊരു ആശ്രയമാണ് ഈ തൊഴിലുറപ്പ് വേദനം അവരുടെ അത്യാവശ്യ മരുന്നുകൾ വാങ്ങുവാനും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിക്കാം പിന്നെ

സർക്കാരിൻ്റെ ഒരു നല്ല പ്രവർത്തനമാണ് വിഴിഞ്ഞം പദ്ധതി ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ പ്രവർത്തനങ്ങളും ഒരുപാട് പേർക്ക് ജോലി കിട്ടും പിന്നെ ക്ഷേമപെൻഷനുകൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ക്ഷേമ പെൻഷൻ അതും പലപ്പോഴും സമയത്ത് കിട്ടാറില്ല എങ്കിൽ പോലും അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും സംബന്ധിച്ചും അത് വലിയൊരു ആശ്വാസമാണ് ഈ ക്ഷേമ പെൻഷൻ പിന്നെ മൊത്തത്തിൽ നമ്മുടെ രാഷ്ട്രീയ സംവിധാനം എല്ലാ മേഖലകളിലും ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു റോഡ് വികസനം അതു നല്ല കാര്യമാണ് നാല് വരി പാത ആറു വരി പാത ഇമ്മാതിരിയുള്ള കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് സർക്കാരിനെ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും നല്ല നിലവാരം പുലർത്തുന്ന എഡ്യുക്കേഷൻ സംവിധാനങ്ങൾ വളരെയുണ്ട് യാത്രാ സൗകര്യങ്ങൾ വേണ്ടിയിട്ടാണെങ്കിൽ വിവിധ എയർപോട്ടുകൾ അങ്ങനെ യാത്ര സൗകര്യങ്ങൾ അതും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നു പിന്നെ മെട്രോ നിഷേധിക്കാൻ പറ്റാത്ത ഒരു വികസനമാണ് മെട്രോ പരിപാടി

ഗതാഗത സൗകര്യങ്ങൾ അതു പോലെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ജനങ്ങളെ ചേർത്ത് പിടിച്ച് തൊഴിലുറപ്പിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് സാമ്പത്തികമായി എല്ലാവരെയും മുൻനിരയിലോട്ട് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി

ക്ഷേമ പെൻഷൻ ഇമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്കേറ്റവും നന്നായിട്ട് തോന്നുന്നത് ഒരുപാട് പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പോലും ഒരുപാട് നല്ല കാര്യങ്ങൾ സർക്കാർ സംവിധാനത്തിലുണ്ട്